ആദ്യ കാലങ്ങളിൽ ഭയങ്കരമായിട്ട് അശുദ്ധിയായിട്ട് നിലനിന്നുകൊണ്ടിരുന്ന ഒന്ന് ഒരു കാര്യമാണ് ഈ ആർത്തവം എന്നു പറയുന്നത് സ്ത്രീകളിലെ ആർത്തവം അതൊക്കെ അശുദ്ധിയായിട്ടുള്ളതാണ് ആദ്യകാലങ്ങളിൽ കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഉത്തരാധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ ആർത്തവ ആർത്തവത്തിന് വളരെയധികം മാന്യത മാന്യമായി ഒരു നില കൽപ്പിക്കുന്ന കൽപ്പിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം കാരണം ആദ്യ കാലങ്ങളിൽ അതിനെ ഒരു അശുദ്ധിയായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് എന്നാ ദൈവത്തിന് മുകളിലുള്ള ഒരു സ്ഥാനമാണ് ഈ ആർത്തവത്തിന് നമ്മൾ നൽകപ്പെടുന്നത് എന്നു പറയപ്പെടുന്നുണ്ട് കൂടാതെ അങ്ങനെ സ്ത്രീകൽ പാലിക്കേണ്ട ഇത് കൂട്ടുകൾ അത് അവിടെ ഒരു അശുദ്ധിയുടെ ഇത് കൂട്ട് ഇല്ലെങ്കിൽപ്പോലും സ്ത്രീകളവിടെ ഒരു ഒരു പുണ്യമായൊരു അല്ലെങ്കിലൊരു മാതാവ് എന്ന നിലയിലവൾ അവിടെ ഭയങ്കര പരിപൂർണ്ണമായിട്ട് പരിപൂർണ്ണത തികഞ്ഞ പരിപൂർണ്ണത തികഞ്ഞവളാണ് അപ്പം അവർ അങ്ങനെ ആ ഒരു നിലയിൽ സ്ത്രീകൾ വളരെ അധികം ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ അവൾ അവിടെ ശുദ്ധിയായിട്ട് തന്നെ നിലനിൽക്കേണ്ട ഒരവസ്ഥയാണ് ഈ ആർത്തവ സമയത്ത് കടന്നു വരുന്നത്